ഞങ്ങളുടെ സമീപത്ത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാലരുവി അത് മഴക്കാലങ്ങൾ അതിലിങ്ങനെ ജലം നിറഞ്ഞിങ്ങനെ ഒഴുകുന്നു അന്നേരം അതിങ്ങനെ മുകളിൽ നിന്ന് ജലം താഴോട്ട് ഒഴുകുന്ന കാണാൻ ഒത്തിരി ഭംഗിയാണ് അത് വീഴുന്ന കാണുമ്പോൾ പാലിങ്ങനെ വീഴുന്നപോലെ പാലിങ്ങനെ പതഞ്ഞു വീഴുന്നത് പോലെയാണ് വെള്ളം ഇങ്ങനെ പതഞ്ഞു പതഞ്ഞു വരുന്നത് അങ്ങനെ ഈ മഴക്കാലത്ത് ആണെങ്കിൽ അവിടെ ഭയങ്കരമാണ് അന്നേരം അങ്ങോട്ട് മനുഷ്യരെ കയറ്റുന്നില്ല അത് മഴ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി മനുഷ്യർ ഈ പാലരുവി കാണാൻ വരുന്നുണ്ട് അത് ഒത്തിരി സന്തോഷപ്രദമാണ് അതിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ വീഴുന്ന കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു ആനന്ദവും കുളിർമയും ഒക്കെയാണ് അതൊരു പ്രത്യേക അനുഭവമാണ് അത് കാണാൻ ഒത്തിരി മനുഷ്യര് വരുന്നുണ്ട് അവിടെ നമ്മള് പോകുംതോറും മറ്റുള്ള പല്ല പല രാജ്യങ്ങളിലെ മനുഷ്യരെ കാണാൻ പറ്റും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും അവരുടെ സംസാരരീതിയും നമ്മുടെ സംസാരരീതിയും തമ്മിൽ വ്യത്യാസമാണ് അത് എങ് എന്തുവാണ് അവര് പറയുന്നത് നമ്മുടെ സംസാരരീതി എന്താണ് അവരുടെ സംസാരരീതിയാണ് പിന്നെ അവരുടെ പിന്നെ ആഹാരം ഈ വരുന്നവരൊക്കെ ആഹാരം കഴിക്കുവല്ലോ ആഹാരം കഴിക്കും അന്നേരം അവിടെയുള്ള കടകൾക്കൊക്കെ നല്ല സാമ്പത്തികമായി ഉയർച്ച വരും സാധനങ്ങള് മേടിക്കും അങ്ങനെ ആ സ്ഥലം അങ്ങ് പുരോഗമിക്കും ഇങ്ങനെ വിനോദസഞ്ചാര കൾ വരുമ്പോഴാണ് ഇങ്ങനെ ഒത്തിരി പുരോഗമനം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ നാട് എല്ലാവിധത്തിലും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും അതിൻ്റെ കൂടെ തന്നെ ആധ്യാത്മികമായിട്ട് നമ്മള് പുരോഗമിക്കുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇതിന് വരുമ്പോൾ അവര് ആധ്യാത്മികമായിട്ട് പുരോഗമിച്ചവരാണെങ്കിൽ തന്നെ അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നതാണ് അങ്ങനെ നമ്മുടെ സംസാരവും ആ നിലയിൽ നമുക്ക് മാറ്റാൻ കാണും അങ്ങനെ അതാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം പാലരുവി പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള ഒരു ഒരു കേന്ദ്രം അതാണ് പുൽങ്കിരിയുള്ള സെൻ ജോസഫ് ചർച്ച് അത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ളതാണ് മാർച്ച് പത്തൊമ്പതിന് വിശു ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാള് നമ്മളാഘോഷിക്കുന്നു അന്ന് നമ്മൾ ഔസേപ്പ് പിതാവെന്ന് പറയുന്നത് പിന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് ഈ പ്രദേശത്തിലെ എല്ലാ മനുഷ്യരും തൊഴിലാളികളാണ് പല പല തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നു കൃഷി ചെയ്ത് റബ്ബർ വെട്ടി ബിസിനസ് നടത്തി അന്നൊക്കെ ഭയങ്കര ആഘോഷമാണ് ഔസേപ്പിതാവിനെ അനുസ്മരിക്കുന്ന അതുപോലെതന്നെ മെയ് മാസം ഒന്നാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവ് ആ ഈ പള്ളിയിൽ വരികയും ആൾക്കാര് ഊട്ട് നേർച്ചയിൽ പങ്കെടുക്കുകയും അതനുസരിച്ച് അവരനുഗ്രഹം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ വരികയും ചെയ്യുന്നു കൂടാതെ അന്നേ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷം ആൾക്കാരുമായിട്ട് പരസ്പരം സംസാരിക്കുന്നു നമ്മുടെ കാര്യം അവർക്ക് മനസ്സിലാകുന്നു അവരുടെ കാര്യം നമുക്ക് മനസ്സിലാകുന്നു ദൈവത്തെ പറഞ്ഞുകൊടുക്കാൻ മനസ്സിലാവുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവിനെ മനസ്സിലാക്കുന്നു ഔസേപ്പിതാവാണ് നമ്മുടെ എല്ലാവരുടെയും മധ്യസ്ഥൻ അതൊരു പ്രത്യേക അനുഭവമാണ് ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മത കേന്ദ്രങ്ങളും എല്ലാം ഒന്നിനൊന്നിന് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് മതകേന്ദ്രത്തില് മതത്തെപ്പറ്റി പള്ളിയിൽ വരുന്ന മനുഷ്യരും ഈ വിനോദസഞ്ചാരങ്ങളിൽ പോകുന്നു അങ്ങനെ പരസ്പരം ഇതെല്ലാം ഇടപഴകി ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്ന ഒന്ന് തന്നെ മുന്നോട്ടുപോകാൻ സാധിക്കില്ല അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഗ്രഹങ്ങളും ആയിത്തീരുന്നു നമ്മുടെ മനസ്സിന് ആനന്ദം തരുന്നു പ്രാർത്ഥന മൂലം ആനന്ദം തരുന്നു അതുപോലെതന്നെ ഇങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കടൽത്തീരങ്ങളിലും ഒക്കെ പോകുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന് എല്ലാവിധത്തിലും മനുഷ്യൻ ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ ഒരു സുഖമാണ് അത് നമുക്ക് ഈ വഴിയിൽ കൂടിയൊക്കെ നമുക്ക് നേടാൻ കഴിയുന്നു ഇതെല്ലാം നേടി നമുക്ക് ദൈവത്തിലേക്ക് ആനയിക്കാനും സംഭവിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഒരു ലോകത്തിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യര് വരുന്നു എല്ലാവർക്കും മനസ്സിന് സന്തോഷവും സുഖവുമാണ് ആവശ്യം എത്ര പണം ഉണ്ടേലും പണമില്ലേലും അതിന് വേണ്ടിയാണ് മനുഷ്യനിങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ ഇവര് വരുന്തോറും വരുന്നതിനോടൊപ്പം തന്നെ ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഒത്തിരി ഒത്തിരി മുന്നോട്ടു ഉയർക്ക് ആ പ്രദേശങ്ങളെല്ലാം ആകപ്പാടെ ഒര് ഉയർച്ചയിലേക്ക് ഒരു മാറ്റത്തിലേക്ക് മുന്നോട്ടു വരുന്നു അങ്ങനെ നമ്മുടെ ജീവിതവും ഉയരുന്നു നമ്മുടെ ചിന്തകള് മാറുന്നു നമുക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ പറ്റുന്നു നമ്മൾ ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾള് സന്തോഷിക്കാൻ പറ്റൂ അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷം മാത്രം കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷം അങ്ങനെ ഓരോരുത്തരും സന്തോഷിക്കുകയും പുതിയ പുതിയ മേഖലകളിലേക്ക് അവരുടെ മനസ്സ് മാറുകയും ചെയ്യുമ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം ഉയർന്നു അങ്ങനെ കൂടെക്കൂടെ അങ്ങനെ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെയും ഈ സ്ഥലങ്ങള് വിസിറ്റ് ചെയ്യാനും അവിടെ വരാനും അവിടെ പ്രാർത്ഥിക്കാനും അവടെയുള്ള മനുഷ്യരെ കാണാനും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനും ഒക്കെ സാധിക്കുന്നു ഇതൊക്കെ നമുക്ക് കഴിയുന്നു അങ്ങനെയൊക്കെ നമ്മള് മുന്നോട്ടു പോവുന്നു